ഹലോ ആ പാത്താങ്കുടി ലൈബ്രറിയല്ലേ ആ ഞാൻ ഇവിടെ അടുത്തുള്ളതാണ് ഡിഗ്രീ നറാണെ വിളിക്കുന്നത് ഞാൻ അവിടുത്തെ ലൈബ്രറീടെ എന്തോ ലൈബ്രറീലെ കുറച്ച് കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടിയായിരുന്നു നമുക്ക് അവിടെ എപ്പോഴാണ് ലൈബ്രറീ സമയം നമുക്കവയിലബ്ലായിട്ട് ഉള്ളത് ആ ടെൻ ടു ഫൈവല്ലേ നമുക്ക് പുസ്തകം എടുക്കാനായിട്ട് എന്തെങ്കിലും ഫോർമാലിറ്റീസൊണ്ടോ ഞങ്ങൾ എപ്പം വന്നാലും കിട്ടുമോ ഇതിനു മുന്നേ വന്നിട്ടില്ല ആണോ എത്ര രൂപ്യാ മെമ്പർഷിപ്പ് ഫീസങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ടല്ലേ ആ ഓക്കേ ഓക്കെ എന്നിട്ട് നമ്മുടെ പുസ്തകങ്ങൾ നമുക്ക് അവിടെ വന്നാൽ മെമ്പർഷിപ്പെടുത്താൽ നമുക്ക് എല്ലാ ദിവസവും ഈ ടൈം ഉള്ള സമയത്ത് വന്നാൽ നമുക്ക് പുസ്തകം എടുക്കാമല്ലേ ഒരു ഒരു ആഹാ ആ കൂടുതലായിട്ടെടുക്കാൻ കൂടുതലായിട്ട് സമയം എടുക്കുകയാണെങ്കിലോ പുസ്തകം രണ്ട് ആഴ്ചയിൽ കൂടുതൽ എടുക്കാൻ പറ്റുമോ അങ്ങനെയാല്ലേ നമുക്ക് പ്രോജക്റ്റൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ അതിനാണ് പുസ്തകങ്ങൾ ഒന്നിച്ചെടുക്കാൻ എത്ര പുസ്തകം വരെ എടുക്കാം അങ്ങനെ വല്ലതുമുണ്ടോ ഒരു ദിവസത്തേക്കാണോ എല്ലാ ദിവസവും നമുക്ക് മൂന്ന് വീതമെടുക്കാവോ അതോ ഒരു എത്ര ഒരു ദിവസം ആഹാ നമുക്ക് അവിടെ ലൈബ്രറീല് വന്നിരുന്ന് നമുക്കിവ എഴുതി എടുക്കാനും വർക്ക് ചെയ്യാനും അങ്ങനെ സൗകര്യമുണ്ടോ ഉണ്ടല്ലേ ഫോട്ടോസ്റ്റാറ്റ് നമുക്ക് ഈ പുസ്തകത്തിന്റെ പ്രിന്റെടുക്കണമെങ്കിൽ അതിനും സൗകര്യം അവിടുണ്ടാകുമോ അതോ പുറത്ത് പോകണോ ആ ഓക്കേ ഓക്കേ ആ നമുക്ക് ഏതൊക്കെ ലാങ്ഗ്വേജാണ് നമുക്ക് പുസ്തകങ്ങൾ അവിടെ അവൈലബ്ലായിട്ടുള്ളത് ആ ആ ഓക്കേ ആ നമുക്ക് കോമ്മേഴ്സ് ആ റിലേറ്റെഡായിട്ടുള്ള എന്താണൊരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് അതിന്റെ അതിനുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളവിടെ എങ്ങനെയാണ് സെലെക്ഷൻ കുറെ ബുക്കുകളുണ്ടോ നമുക്ക് ആഹാ എത്ര പീസസുകളുണ്ടാവോ നമുക്ക് റെഫെർ ചെയ്യാൻ വേണ്ടി ആ കൊമ്മേഴ്സ് റിലേറ്റഡായിട്ടുള്ളത് ആ ഹാ ആ പിന്നെ നമുക്ക് എന്താണ് ഈ ഇത് ഓൺലൈനായിട്ട് നമുക്ക് എന്തെങ്കിലും എന്നാ ഫസ്റ്റ് കോപ്യായിട്ട് പുസ്തകങ്ങൾ കിട്ടുമോ ഓൺലൈൻ വായിക്കാനോ അല്ലെങ്കിൽ ഈ പീസസ്കളുടെ എന്താണ് ഓൺലൈനായിട്ടുള്ള കോപ്പീസങ്ങനെ നമുക്ക് ലൈബ്രറിയിൽ അവൈലബ്ലാണോ ഇല്ലല്ലെ പുസ്തകം എടുക്കുന്നത് മാത്രമേ ഉള്ളല്ലേ ആ അ നമുക്ക് ഇപ്പം കൂടുതൽ എന്നെക്കിലൊപ്ഷനുണ്ടോ ഒരു രണ്ട് ആഴ്ചക്ക് രണ്ട് ആഴ്ചയിൽ കൂടുതലായിട്ട് റിനൂ ചെയ്യാതെ എങ്ങനെ എന്തൊരു പ്രോജക്റ്റിന്റോക്കെ ഭാഗമായിട്ട് കൂടുതൽ നേരം എടുക്കാനങ്ങനെ വല്ല ഏതെങ്കിലും ഓപ്ഷൻസൊണ്ടോ ലൈബ്രറീൽ ആ ഹാ നമുക്ക് എന്താണ് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാനായിട്ടുള്ള പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറി വഴി നമുക്ക് വാങ്ങാൻ അങ്ങനെ വല്ലതും പറ്റുമോ ആ ഹാ തരുന്നത് ആയിരിക്കുമല്ലേ ആ ഹാ ആ ഹാ നമ്മുടെ ലൈബ്രറീൽ എന്താണ് നമ്മൾ വന്നിരുന്ന് ചെയ്യാന്ന് പറഞ്ഞല്ലോ അപ്പം അവിടെ മറ്റേ ഇങ്ങനെ ഗ്രൂപ്പ് സ്റ്റഡീസ് ചർച്ച അതിനൊക്കെ ഉള്ള സൗകര്യം അവിടുണ്ടോ

ആ ഹാ ആ

ആ ഹാ ഹാ ആ അത് കുഴപ്പമില്ല അപ്പം അപ്പം കുറച്ചു കാര്യങ്ങൾ അങ്ങനെ അറിയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് അപ്പം ഞാൻ എനിക്ക് സൗകര്യം പോലെ ഞാൻ വന്നോളാം മെമ്പർഷിപ്പെടുത്ത് നമുക്ക് പുസ്തകം എടുക്കാം കുഴപ്പമില്ല അപ്പം എന്നാൽ അന്നേരം മീറ്റ് ചെയ്യാം കേട്ടോ ആ ശരി താങ്ക് യു അ